ആ ഹലോ ഇത് ആരായിരുന്നു

ആ ഓക്കെ ആ ആ ആ ആയിക്കോട്ടെ മാം എങ്ങോട്ടേക്കാണ് ഉദ്ദേശിക്കുന്നത് ആ അല്ല എങ്ങോട്ടേക്ക് പോകാനാണ് ഒക്കെ പ്രതീക്ഷിക്കുന്ന സ്ഥലം എവിടേക്കാണെന്ന് എങ്കിലും ആ ഓക്കെ ആ ആ ഓക്കെ ആ ആ ആ ഓക്കെ മാം കേരളത്തിലെന്ന് വെച്ചിട്ട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ആണ് ഉള്ളത് കാരണം ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് കുറച്ച് തണുപ്പ് ഇത് ആക്കാൻ ഒക്കെ വേണ്ടീട്ട് വയനാട് മൂന്നാർ ഊട്ടി ഒക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇപ്പോൾ അടുത്തുന്ന് വെച്ചാൽ ഇപ്പോൾ കോഴിക്കോട് എത്തിയ സ്ഥിതിക്ക് നമുക്ക് എന്താക്കാം വയനാട് നമുക്ക് പോകാം കാരണം വയനാട് ഒരുപാട് കാണാൻ ഉണ്ട് ഒരു ഒരാഴ്ചത്തെ ട്രിപ്പാ മാഡം ഇതാക്കുന്നത് എങ്കിൽ നമുക്ക് അടിച്ച് പൊളിച്ച് പോയി വരാൻ പറ്റും ആ അത്യാവശ്യം ദൂരം ഉണ്ട് മാം ഒന്ന് നമ്മൾ നമുക്ക് നമ്മളെതായിട്ടുള്ള വണ്ടി ഉണ്ട് അതിൽ തന്നെ നമുക്ക് പോയി ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആക്കാം അക്കോമഡേഷൻ നമ്മൾ തന്നെ ആണ് ഫ്രീ ആണ് പിന്നെ ഒരാഴ്ചത്തെ ട്രിപ്പ് ആണ് നമ്മൾ ഇത് ആക്കുന്നത് കാരണം പ്രശ്നം ഒരാഴ്ചത്തോളം കാണാൻ ഉണ്ട് വയനാട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കയറി പോവുമ്പോൾ തന്നെ എന്താണ് പറയാ ചുരം ഉണ്ട് ചുരത്തിൽ ഒക്കെ ഒരുപാട് കാഴ്ചകൾ കാണാൻ ഉണ്ട് പിന്നെ അതുപോലെ മേപ്പാടി പിന്നെ കുറുവാദ്വീപ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കാണാൻ നമുക്ക് ഒരാഴ്ച്ച കൊണ്ടേ നമുക്ക് ഈ ട്രിപ്പ് തീർക്കാൻ പറ്റൂള്ളൂ ആ ഓക്കെ വയനാട് അല്ലേ അതെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പാക്കേജിൽ തന്നെ ആ താമസം അക്കോമഡേഷൻ ഞങ്ങൾ ഫ്രീ ആണ് കാരണം നിങ്ങൾ അതിൽ നിന്ന് അതിനുള്ള എമൗണ്ടും കൂടി ഞങ്ങൾ നിങ്ങളിൽ നിന്നും വാങ്ങുന്നത് ആയിരിക്കും

ആ നിങ്ങൾക്ക് എങ്ങനെ ആണോ വേണ്ടത് അതുപോല തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത്തരാം ആ എന്നാൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് നാളെ എന്നാൽ പോവാൻ തോന്നണേ ഇന്ന് ആണോ അല്ലെങ്കിൽ ഇന്ന് എവിടെ എങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടോ അല്ലേ നാളെ തൊട്ട് ആണോ നാളെ രാവിലെ തൊട്ട് അപ്പം ഞങ്ങൾ ട്രാവൽ ഏജൻസിയിലേക്ക് വന്നോളൂട്ടോ താമരശ്ശേരി ആണ് നമ്മളുടെ ട്രാവൽ ഏജൻസി ഉള്ളത് അപ്പം അങ്ങോട്ടേക്ക് വരുമോ ഞങ്ങൾ പേര് പറഞ്ഞ് കഴിഞ്ഞാൽ അറിയാം പി കെ ട്രാവൽസെന്നാ ഞങ്ങളുടെ ട്രാവൽസിൻ്റെ പേര് അപ്പം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഞങ്ങൾ വണ്ടി ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാവും ഓക്കെ ഓക്കെ